എനിക്ക് ഇഷ്ടപ്പെട്ട മാസികാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിത മംഗളം മനോരമ അങ്ങനത്തെ കുറേ മാസികകളൊക്കെ ആദ്യം വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ വരുന്നില്ല കാരണം എല്ലാം ഇൻറ്റർനെറ്റ് വഴിയാണ് എല്ലാം കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ വരിക്കാരൊക്കെ അതിന് കുറവാണ് പണ്ട് മ മനോരമ വനിതാന്നൊക്കെ പറഞ്ഞതിൽ വീട്ടിലേക്ക് നമ്മൾ അയച്ചിട്ട് നമ്മൾ അതും വായിച്ചിരുന്നു സമയം പോകുന്നതൊക്കെ ഒരു ഇതാണ് പിന്നെ പത്രംന്നു പറഞ്ഞുകഴിഞ്ഞാൽ മാതൃഭൂമി പത്രമാണ് ഞാൻ വീട്ടിൽ വരുത്തുന്നത് പിന്നെ മാതൃഭൂമി ഇഷ്ടമാണ് മനോ മലയാള മനോരമ ഇഷ്ടമാണ് അതൊക്കെ നല്ല അടി നല്ല രീതിയിലുള്ള പത്രമാണ് പക്ഷേ കൂടുതലായിട്ടും മാതൃഭൂമിയാണ് ഈ രാഷ്ട്രീയക്കാരെയും ഇവരെയൊന്നും വലിയ ഇതാക്കാണ്ട് എഴുതുന്നത് മാതൃഭൂമിയാണ് പിന്നെ ദേശാഭിമാനി ഉണ്ട് ദേശാഭിമാനി മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ മെയിന് ഇതാണ് അതുകൊണ്ട് അവർക്ക് അത് എനിക്ക് വലിയ താല്പര്യമില്ല വായിക്കാൻ കാരണമെന്നു വെച്ച്കഴിഞ്ഞാൽ ഒരു പാർട്ടിനെ പുകഴ്ത്തുക അങ്ങനെത്തെ കാര്യങ്ങളാണ് ഇതിൽ ദേശാഭിമാനിയിൽ ചെയ്യുന്നത് പിന്നെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെ ബ്ലോഗ് എനിക്കിഷ്ടമാണ് ഞാനിപ്പോൾ ട്രാവലിനെ പറ്റിയൊക്കെയാണെങ്കിൽ ഈ ബുൾ ജെറ്റ്ൻ്റെ ബ്ലോഗ് ഞാൻ കാണാറുണ്ട് പിന്നെ ടെക് ട്രാവലേറ്റെന്ന് പറഞ്ഞിട്ട് ഒരാൾടെ ഒരു പുള്ളിൻ്റെ ബ്ലോഗ് കാണാറുണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും സയൻസ് പരമായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ എം ഫോർ ടെക്കിൻ്റെ ബ്ലോഗുകൾ കാണാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കാണാറുള്ളത്